ഹലോ ടാറ്റ ഏജൻസി അല്ലെ ആ ഞാൻ ഒരു രു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുകയായിരുന്നു എൻ്റെ പേര് അലീഷ എന്നാണ് എനിക്ക് വരുന്ന വ്യാഴാഴ്ച അതായത് ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതി കൊച്ചിൻ കൊച്ചിൻ അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എനിക്ക് പോകണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു ക്യാബ് വേണമായിരുന്നു എനിക്ക് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം അപ്പോൾ എനിക്ക് പറ്റിയ നല്ല ഒരു ഡ്രൈവറിനെ ആണ് ആവശ്യം ആവശ്യമായിട്ടുള്ളത് അപ്പം നിങ്ങളുടെ റേറ്റും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു നമുക്ക് ഒരു രാവിലെ ഒമ്പതരക്കാണ് ഇപ്പം എനിക്ക് ഫ്ലൈറ്റിൻ്റെ ഇത് വന്നിരിക്കുന്നത് അപ്പം ഒരു ആറരയോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ ചെക്ക് ഇൻ ചെയ്യേണ്ടതായതു കൊണ്ട് ബാക്കി പ്രോസസും കാര്യങ്ങളുമൊല്ലാം ചെയ്യേണ്ടതു കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ പോവേണ്ടതായിട്ടുണ്ട് അപ്പം ഒരു പറ്റിയ ഒരു ഡ്രൈവറെയും അതുപോലെ തന്നെ നമ്മൾക്ക് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു വണ്ടി ഒരു ഇന്നോവ ആണെങ്കിൽ കുഴപ്പമില്ല കാരണം എൻ്റെ കൂടെ ഒരു മൂന്ന് നാലു ആളുകളും കൂടെ വരുന്നുണ്ട് പിന്നെ പെട്ടിയും സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഇന്നോവ അന്നത്തേക്ക് അവൈലബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് നമുക്ക് പറ്റിയ ഒരു ഡ്രൈവറും അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ റേയ്റ്റും കാര്യങ്ങളുമൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു